ചേട്ടൻ എവിടെയാ ഉള്ളത് ഞാൻ ഒരു മെസേജ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൊക്കേഷനിലെത്തിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസേജ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടിയില്ല ഞാനും കുറേ നേരമായി ഇവടെ തന്നെ നിൽക്കുന്നു അപ്പോൾ ഞാൻ ചേട്ടനെ കുറേ നേരമായി നോക്കുന്നു എവിടെയാ ഉള്ളത് കറക്റ്റായിട്ട് എവിടെയാ ഉള്ളത് ഞാനിവിടെ മറ്റേ പലചരക്ക് കടേൻ്റെ അവിടെ ഉണ്ട് കെ സി സ്റ്റോർസിൻ്റെ അടുത്തുണ്ട് ചേട്ടനെവിടെയാ ഉള്ളേത് ആ ഇവിടെ ഹോട്ടലിൻ്റെ ഒപ്പോസിറ്റാല്ലേ അതാ ഞാൻ നോക്കീട്ട് കാണാത്തത് ഞാൻ അവിടെയല്ലേ പാർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂവല്ലേ ആ ഞാനും കണ്ടായിരുന്നു ലൊക്കേഷൻ അതായത് എത്തിയെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ലൊക്കേഷൻ മെസേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ വിളിച്ചിട്ടൊട്ടു കിട്ടിയും ഇല്ല ആ എന്നാൾ ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്ത് വരാം ആ ആ ഇങ്ങോട്ട് വരുമോ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഞാനെന്നാൽ ഇവടെ തന്നെ നിൽക്കാം ആ ആ ആ ആ എന്നാൽ ചേട്ടനിങ്ങോട്ട് വന്നാൽ മതി ആ ഓക്കെ എന്നാൽ